ഫോണിന് ധാരാളം നെഗറ്റീവ് വശങ്ങളുണ്ട് എത്രത്തോളം പോസിറ്റീവ് പറഞ്ഞോ അത്രത്തോളം തന്നേ നെഗറ്റീവ് വശങ്ങളാണ് ഫോണിനുള്ളത് പിന്നേ ഫോണ് കുറച്ച് നാൾ മാത്രമേ നല്ല ബാറ്ററി ബാക്കപ്പ് ലഭിക്കുകയുള്ളു പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങിപ്പോവുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് ഹാങ്ങാവുന്നുണ്ട് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി പോവുന്നുണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് എന്നതെല്ലാം ഫോണിൻറെ പ്രശ്നമാണ് പിന്നേ കണ്ണിന് അപകടകരമാണ് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടാനൊക്കെ ഇതിലൂടെ പറ്റുന്നു കൺതടങ്ങളിൽ കറുപ്പ് വീഴാനെല്ലാം ഫോണിൽ നോക്കുന്നതിലൂടെ ഉണ്ടാകുന്നു അതുപോലെതന്നെ എത്രത്തോളം സുരക്ഷിതത്ത്വം നൽകുന്നു എന്നു പറയാൻ പറ്റില്ല നമ്മുടെ ഡാറ്റകൾ ഫോട്ടോസുകൾ വിവരങ്ങളെല്ലാം ഹാക്ക് ചെയ്യപ്പെടാനും ചോരാനുമെല്ലാം സാധ്യത ഉണ്ട് ഒരാൾക്ക് പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ സാധിക്കും ഫോണിൽ അത്രത്തോളം പ്രൈവസി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതുപോലെ മിസ്യൂസ് ചെയ്യപ്പെടാൻ ധാരാളം അവസരങ്ങൾ ഫോണിലുണ്ട്